ഇന്ത്യയിലെ ആശുപത്രി സേവനം തികച്ചും വരും നാളുകളിൽ വെച്ച് നോക്കുമ്പോല വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇവിടെ അത്യാവശ്യമായിട്ട് ഒരു അസുഖം കൊണ്ട് വന്നാൽ പോലും ഒരു രോഗിക്ക് ക്യൂ നിൽക്കാതെ ഈ നാട്ടിൽ മരുന്ന് ലഭിക്കുകയില്ല ഇവിടെ ആശുപത്രികളിൽ ശുചിത്വ പരിപാലനം വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നീണ്ട ക്യൂകൾ ഒരു കൗണ്ടറിൽ തന്നെ രണ്ട് പേർ ഇരുന്നാൽ എത്ര ഗവണ്മെൻറ് ആശുപത്രിയിലൊക്കെ സംബന്ധിച്ച് തന്നെ എത്ര പേർ ഒരു ജനങ്ങൾ എത്ര ജനങ്ങളാണ് ഒരു ദിവസം അവിടെ എത്തിച്ചേരുന്നത് അപ്പം എല്ലാവർക്കും രോഗി ഡോക്ടറിനെ കണ്ട് പോവണം എന്ന് ആവശ്യമായി തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ നീണ്ട ക്യൂ നിന്ന് കഴിയുമ്പം തന്നെ പലരും മടുത്ത് പോവും അത് മാത്രമല്ല ഇങ്ങനെ ക്യൂ നിൽക്കും തോറും അവർ ക്ഷീണിക്കുകയാണ് ഇപ്പം ഒരു പനി കൊണ്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ ഈ ക്യൂ നിൽക്കുന്നതിൻറെ ഉള്ളിൽ തലകറങ്ങി വീണ് അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നീണ്ട ക്യൂ ആണ് പിന്നെ ഗവണ്മെൻറ് ആശുപത്രികളെ സംബന്ധിച്ച് അവിടെ ചിലവ് കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ അങ്ങോട്ട് എല്ലാ രോഗികളും പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു അതേ സമയം പ്രൈവറ്റ് ആശുപത്രികളിലാണെങ്കിൽ അവിടെ ഒരു ചെറിയ പനിയായിട്ട് ചെന്നാൽ തന്നെ അവർ ഒരുപാട് ചികിത്സ നമ്മളെ കൊണ്ട് ചെയ്യിക്കും അങ്ങനെ ഒരുപാട് മരുന്നിനും പിന്നെ അവിടുത്തെ ഓരോ സ്കാനിങ്ങിനും തന്നെയും പത്തും പതിനായിരം രൂപ രൂപയാണ് ഓരോ പാവപ്പെട്ടവനും വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആശുപത്രികളിലേക്ക് പോകാൻ പലപ്പോഴും പാവപെട്ട ജനങ്ങൾ മടിക്കുന്നു പൈസ ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർക്ക് ചികിത്സ നിഷേധമാവുന്നത് ഇപ്പോഴുണ്ട് ക്യാൻസർ വന്ന രോഗിയാണെങ്കിൽ പോലും അതിന് കീമോതെറാപ്പി അതിൻറേതായ കുറേ ഏറെ ചിലവുകളുണ്ട് ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ ചെന്ന് ഓൾറെഡി കൊടുക്കേണ്ട പൈസയേക്കാൾ പത്ത് ഇരട്ടി കൊടുക്കാനൊന്നും ആരുടെയും കയ്യിൽ പൈസ കിട്ടില്ല കാണില്ല അപ്പം തന്നെ ഗവണ്മെൻറ് ആശുപത്രി പോകാനായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഗവണ്മെൻറ് ആശുപത്രികളിൽ അത്രയും സൗകര്യവും അതിനുള്ള സംവിധാനങ്ങളും മെഷീനുകളൊന്നും അത്ര ലഭ്യമല്ല പ പാവപ്പെട്ടവന് പക്ഷേ പോകാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടും പിന്നെ അവന് അവൻ്റെ കൊക്കിലൊതുങ്ങുന്ന രീതിയിലുള്ള പൈസ കൊടുക്കണ്ടത് കൊണ്ടും ഗവണ്മെൻറ് ആശുപത്രിയാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ തുടർ ചികിത്സയായ തുടർ ചികിത്സയിൽ നിന്നും പണമില്ല എന്ന പേരിൽ പലരും ഒഴിഞ്ഞ് മാറുകയാണ് ഗവണ്മെൻറ് ആശുപത്രികളിലെ സേവനത്തെ സംബന്ധിച്ച് പറയുകയാണങ്കിൽ നന്നായി ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന നേഴ്സ്മാരും ഉണ്ട് എന്നാൽ തീരെ അശ്രദ്ധമായി രോഗിയെ ചികിത്സിക്കുന്ന സിസ്റ്റർമാരും അതുപോലെ തന്നെ ആശുപത്രി പരിപാലകരും ഉണ്ട് ഒരു രോഗിയെ ചികിത്സിക്കുക അല്ലെങ്കിൽ അവരെ സേവിക്കുക എന്നതാണ് ഒരു ഡോക്ടറിൻ്റെയും നേഴ്സ്മാരുടെയും കടമയും ഉത്തരവാദിത്വവും അത് ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ വെറുതെ ഈ നേഴ്സിങ്ങ് പഠിച്ച് ജോലിയിലേക്ക് കയറുന്നത് വെറും ഒരു സേവനം അല്ലെങ്കിൽ വെറുമൊരു ജോലി ഇത് ചെയ്താൽ പൈസ കിട്ടും എന്നുള്ള ഒറ്റ കാരണത്താൽ ജോലി ചെയ്യുന്ന നിരവധി നേഴ്സുമാരെ എനിക്ക് തന്നെ അറിയാം എന്നാൽ അതൊരു അതൊരു ദൈവീക കാരുണ്യമായി അല്ലെങ്കിൽ മറ്റെന്തെരിൻ്റെ വിഷമം കാണുമ്പോഴാണെങ്കിൽ അവൻ്റെ സങ്കടങ്ങൾ കാണുമ്പോൾ അവൻ്റെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അവനെ സഹായിക്കുന്നത് ഒരു ദൈവീക കാര്യമായി എടുക്കുന്ന പല കന്യാ പല സിസ്റ്റേഴ്സിനെയും നമ്മൾ കാണുന്നതാണ് അപ്പോൾ വെൽ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള അഥവാ ഇത് ഇങ്ങനെ ബിലീവേഴ്സ് പോലെയുള്ള വലിയ വലിയ പ്രൈവറ്റ് ആശുപത്രികളിലെ നേഴ്സുമാരുടെ സൗകര്യം വളരെ ലളിതമാണ് കാരണം അവർക്ക് രോഗികളിൽ നിന്ന് അവർ അത്രയും പൈസ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരിക്കലും രോഗികളെ ഒരുമാതിരി ചവറ്റ് കൊട്ടയിൽ ഉള്ള രോഗികളെ പോലെ കാണുന്നില്ല അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ വില കുറച്ച് കൂടുതലാണങ്കിലും നല്ല ട്രീറ്റ്മെൻറ് അവിടെ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് പാവപ്പെട്ടവൻ പൈസ ഇല്ലെങ്കിൽ പോലും അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ആശ് ഇന്ത്യയിലെ ആശുപത്രി മറ്റ് ആശുപത്രികളെ വെച്ച് നോക്കുമ്പോൾ അത്ര നല്ല സൗകര്യത്തിലല്ല പോവുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ